ചേച്ചിയുടെ ഹോബിയെ ചേച്ചി എങ്ങനെയാണ് വരുമാന മാർഗ്ഗമാക്കി മാറ്റിയതെന്ന് പറയാമോ വരുമാന മാർഗം ആക്കിയതെന്ന് പറയാൻ എൻ്റെ ഹോബീ എന്ന് പറയാൻ മെയ്നായിട്ടും പറയേണ്ടത് കരകൗശല വസ്തുക്കളുണ്ടാക്കുന്നത് പണ്ടേ എനിക്കിഷ്ടവാണ് സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്ത് ആർട്ടാൻക്രാഫ്റ്റെന്ന് പറയുന്ന പിരീഡ് ഭയങ്കര ഇഷ്ടവാണ് അപ്പം അന്നൊക്കെ പേപ്പർ കൊണ്ടുള്ള ഒരു പാട് കാര്യങ്ങൾ ഉണ്ടാക്കുവായിരുന്നു

പൂക്കള് മരങ്ങൾ പിന്നെ ബട്ടർഫ്ലൈസ് മീന് അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ അന്നൊക്കെ ഉണ്ടാക്കുവായിരുന്നു പിന്നത് കഴിഞ്ഞ് പേപ്പറിൻ്റെ ഇതൊക്കെ കഴിഞ്ഞപ്പം തൈയ്യലായി കൊച്ച് കൊച്ച് എമ്പ്റോയ്ഡറി വർക്കുകളൊക്കെ പഠിച്ചു അപ്പം അതൊക്കെ എൻ്റെ ഉടുപ്പുകളൊക്കെ ഞാൻ ചെയ്യുവായിരുന്നു പിന്നീടത് എൻ്റെ അനിയത്തിമാരുടെ ഉടുപ്പുകൾ ചെയ്ത് കൊടുത്തു പിന്നെ കുറച്ചുംകൂടെ വലുതായി കഴിഞ്ഞപ്പം അമ്മയുടെ ബ്ലൗസ്സില് പിന്നെ കുഞ്ഞമ്മമാരുടെ ബ്ലൗസ്സില് അങ്ങനെ ഒക്കെ ചെയ്ത് കൊടുക്കുവായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ തയ്യലിൻ്റെ ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പം പെയിൻറ്റിങ്ങില് കയറി പെയ്റ്റിങ്ങിന് കയറി ഞാനാ ഈ പറഞ്ഞ പോലെ ഫാബ്രിക് പേയ്റ്റിങ്ങ് പഠിച്ചു കൂടുതൽ പെയ്റ്റിങ്ങ് പഠിച്ചു കഴിഞ്ഞപ്പോൾ ഫാബ്രിക് പേയ്റ്റിങ്ങ് ചെയ്യാന് തുടങ്ങി അപ്പോൾ അത് ഷോളുകളിലൊക്കെ ചെയ്യുവായിരുന്നു പിന്നീട് സാരികളില് ചെയ്തു അമ്മയ്ക്ക് പിന്നെ എൻ്റ അനിയത്തിക്കൊക്കെ സാരി ചെയ്തൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ അത് കണ്ടിട്ട് പലരും ആവിശ്യപ്പെട്ടു അതുപോലെ ചെയ്തുകൊടുക്കാമോ എന്ന് അങ്ങനെയാണെൻ്റെ ആദ്യത്തെ ഒരൂ അതിനൊര് വരുമാന മാർഗമായിട്ട് ഞാനതിനെ കണ്ടുവന്നത് എനിയ്ക്കങ്ങനെ ആയിരുന്നു കുറെ സാരികള് എനിക്കിങ്ങനെ ആവശ്യപ്രകാരം ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റി അപ്പം എൻ്റെ ഞാനൊന്നുംകൂടി കൂടുതൽ പോയി പഠിച്ചു അതിനെപ്പറ്റി ഭംഗിയായിട്ട് സാറ്റൻ ഫാബ്രിക് ഇതൊക്കെ ചെയ്യാനായിട്ടൊക്കെ പഠിച്ചിട്ട് അതെനിക്ക് ഒരുപാട് സാരികള് ചെയ്ത് വിറ്റഴിക്കാനായിട്ട് പറ്റിയായിരുന്നു പിന്നെ അത്കഴിഞ്ഞ് പെയ്ൻറ്റിങ്ങിൻ്റെ ആ ഒരു ഇത് കുറേകാലം ചെയ്തിരുന്നു പിന്നെ എക്സിബിഷൻസോക്കെ നടത്തി കുറെ സാരികളും ഷോളുകളും പിന്നെ മ്യൂറൽ പേയ്ൻറ്റിങ്ങ് വന്നപ്പം അത് പഠിച്ചിട്ട് അത് ഷർട്ടുകളിൽ ചെയ്യുക അങ്ങനെ ഒക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ പെ റ്റെറാക്കോട്ട നമ്മുടെ ക്ലേ വെച്ചിട്ട് ചെയ്യുന്ന ഓർണമെൻറ്റ്സ്സ് എനിക്കിഷ്ടവായിട്ട് ചെയ്തിരുന്നു ടെറാക്കോട്ടേയെക്കാളും മുന്നെ ചെയ്തത് ഫില്ലിങ്ങാരുന്നു ഫില്ലിങ്ങ് കൊണ്ട് കുറെ കമ്മലുകളും മാലകളും അങ്ങനെ ഒക്കെ ചെയ്ത് വന്നപ്പൊഴാണ് ടെറാക്കോട്ടയോട് ഒരു ഇന്റെരെസ്റ്റ് വന്നു അപ്പം അങ്ങനെ ക്ലേ വെച്ചിട്ട് എയർഡ്രൈ ക്ലേ വെച്ചിട്ട് ഞാനത് പയ്യെ ചെയ്യാൻ തുടങ്ങി പയ്യെ ചെറിയ കമ്മലുകളൊക്കെ ആദ്യം ചെയ്തു പക്ഷെ അത് എനിക്കത് വിൽക്കാനുള്ളൊരു ബിസിനസ് ലെവലിലേക്കു ആക്കാനായിട്ട് വന്നപ്പോഴത്തേക്ക് അതില് നമുക്ക് കുറച്ചുംകൂടെ ഒരു നമ്മള് വിറ്റഴിക്കുന്ന സാധനത്തിന് കുറച്ചുംകൂടെ ഒരു ഗ്യാരണ്ടി നിൽക്കേണ്ടതാണ് കാരണം നമ്മളിപ്പൊൾ സാരിയിൽ പേയ്ൻറ്റേയ്ത് കൊടുക്കുമ്പൊൾ പേയ്റ്റിൻറെ ഒരു ക്വാളിറ്റി ഇളകാത്ത ഒര് രീതിയിൽ നമ്മള് ചെയ്താൽ മതി പക്ഷെ നമ്മള് ഓർണമെൻട്സ്സ് ചെയ്യാന്ന് പറയുമ്പഴത്തേക്ക് അപ്പം അതിൻ്റെ ഹുക്ക് ചിലപ്പം അത് കുറച്ചു നാള് കഴിയുമ്പം ഇങ്ങൂരിപ്പോരും അതിൻ്റെ ആ ഒരു ഗം ഒന്നും കറക്റ്റായില്ലെങ്കിൽ അത് ഊരി പോരും പിന്നെ ചിലപ്പം പൊട്ടിവരാനുള്ള സാ ചാൻസ് ഉണ്ട് അപ്പം അങ്ങനെ ഒക്കെ നമുക്കത് ബിസ്നസ് ലെവലിൽ വരുമ്പം അത് ശെരിയാവില്ലല്ലോ നമുക്ക് പിന്നീടൊരു ബിസ്നസുണ്ടാവാനായിട്ട് ഉള്ളൊരു ചാൻസ്സ് കുറയും അപ്പം അങ്ങനെ വന്നപ്പം എനിക്കത് പഠിക്കണം എന്നായി ജ്വല്ലറി മേക്കിങ് ഞാൻ ഒന്ന് പഠിക്കാമെന്നുള്ള രീതിയിൽ അത് പോയി പഠിച്ചു അപ്പം അത് പഠിച്ചു കഴിഞ്ഞപ്പം ഇതുപോലെ കമ്മല് പിന്നെ മാലകള് ഇത്തിരിക്കൂടെ വലിയ മാലകളൊക്കെ ചെയ്യാൻ തുടങ്ങി ഞാൻ മാലയൊക്കെ ചെയ്തു അത് കഴിഞ്ഞ് പിന്നീട് ഞാന് ഗണപതിയുടെ മാല അത് ഈ പറഞ്ഞത് പോലെ വലിയ ബീഡ്സ്സിൻ്റെ മാല ചെയ്തിട്ട് ഗോൾഡൺ പെയിന്റ് ചെയ്ത് പിന്നെ ഗണപതിയെ നമ്മള് പെൻ്റൻറ്റില് നന്നായിട്ട് കൈവെച്ച് തന്നെ ഉണ്ടാക്കുന്ന ഗണപതി അത് എൻ്റെ ഒരു മാസ്റ്റർപീസ്സായിരുന്നു അങ്ങനെ ഞാന് എനിക്കൊര് പത്തില് കൂടുതൽ മാലകള് തന്നെ ഞാനങ്ങനെ വിറ്റിട്ടുണ്ട് പിന്നെ അത് വിറ്റങ്ങനെ വന്ന് കഴിഞ്ഞപ്പം എനിക്കത് ഭയങ്കര ഇൻട്രെസ്റ്റിങ്ങായി ഞാൻ കുറച്ചുംകൂടെ കാര്യങ്ങളൊക്കെ ചെയ്ത് തുടങ്ങി മോതിരങ്ങളുണ്ടാക്കാന് വളയുണ്ടാക്കാന് ക്ലെ ക്ലേ വെച്ചിട്ട് വളയുണ്ടാക്കുന്നത് എനിക്ക് ഭയങ്കരമൊരു ഒരു അഡ്വെഞ്ചെറസ് ഇതായിരുന്നു കാരണം അത് ഇപ്പോഴും പൊട്ടും രണ്ട് മൂന്നെണ്ണം ഉണ്ടാക്കിയിട്ടൊക്കെ എനിക്ക് പൊട്ടി പോയിട്ടുണ്ട് അപ്പോഴൊക്കെ നമുക്ക് സങ്കടം തോന്നുവെങ്കിലും ഒര് വാശിയായിരുന്നത് കൂടുതൽ ചെയ്തെടുക്കണമെന്ന് അപ്പം അങ്ങനെ വളയെടുത്തു ചെയ്ത് പക്ഷെ അതെനിക്ക് അതു ഇതുപോലെ ഡിമാൻറ്റ് വന്നു ഒരുപാട് അപ്പം അത് ഞാൻ കുറച്ചു ചെയ്തു കൊടുത്തായിരുന്നു അപ്പം അങ്ങനെയൊക്കെ വന്ന് കുറെ സാധനങ്ങൾ ഉണ്ടാക്കി വന്നപ്പം എനിക്ക് രണ്ട് മൂന്ന് സ്ഥലത്ത് എക്സിബിഷസ്സ് ചെയ്യാൻ പറ്റിയിരുന്നു സ്കൂളിലും പിന്നെ ഓഫീസുകളിൽ ഫ്ളാറ്റുകളിൽ ഒക്കെ എക്സിബിഷൻസ്സ് ചെയ്ത് അത് നല്ല കച്ചവടം എനിക്ക് കിട്ടിയിരുന്നു അപ്പം അങ്ങനേയും കുറെ സാമ്പത്തികമായിട്ടെനിക്ക് കിട്ടിയിരുന്നു പിന്നല്ലാതെ ഓൺലൈൻ ഞാന് ഫെയ്സ്ബുക്ക് വഴിയും ഒക്കെ സെല്ലിങ്ങ് അന്നൊക്കെ ഫെയിസ്ബുക്കായിരുന്നു ഇൻസ്റ്റഗ്രാമൊന്നും അന്ന് ഇതല്ലായിരുന്നു അപ്പം ഫേസ്ബുക് വഴി ഒരുപാടെനിക്ക് പേജസിൽ കൂടെ ഓർഡേഴ്സ് കിട്ടി അങ്ങനെ ചെയ്ത് ഒരുപാട് കാര്യങ്ങളങ്ങനെ വിൽക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പം അങ്ങനെയാണ് ഞാനെൻ്റെ കരകൗശല കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് എന്താ പറയുക എന്നാൽ എനിക്കൊരു വരുമാനമാകുന്ന രീതിയിൽ ഞാന് ചെയ്തിരുന്നത് ഇപ്പഴും എനിക്ക് ഇഷ്ടാവാണ് അതുപോലെ ക്രോഷ്യോ ചെയ്യുവായിരുന്നു ഞാൻ ക്രോഷ്യോ വെച്ചിട്ട് വീടുകൾലേക്ക് നമുക്ക് മാറ്റ് പിന്നേ എന്തെങ്കിലും തലയിൽ ഇടുന്ന ബാൻഡ്കള് പിന്നെ ഹേ ബാഗ്സ് ചെറിയ ചെറിയ ടോട്ട് ബാഗ്സ്സ് അങ്ങനെയക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട് പിന്നെ ഷോളുകൾ നമ്മള് തണുപ്പുള്ള സ്ഥലത്തേക്ക് പോകുമ്പോൾ പുതയ്ക്കുന്ന ഷോളുകൾ ചെയ്തിട്ടുണ്ട് അങ്ങനെ വളരേ എന്താ പറയുന്നതെന്ന് നമുക്ക് ഇഷ്ടത്തോട് കൂടി നമ്മളത് ചെയ്യുകയും അതിനൊരു ചെറിയ നമുക്കൊരു വരുമാന മാർഗം ആകുന്നു എന്ന് പറയുമ്പോൾ അതൊരു സന്ത് വലിയ സന്തോഷ ചെറിയ സന്തോഷവല്ല അതൊരു വലിയ സന്തോഷമാണ് നമ്മള് നിർബന്ധപൂർവം ഒരു കാര്യം ചെയ്ത് കിട്ടുന്ന സാമ്പത്തികവും നമ്മളിഷ്ടത്തോട് കൂടി ചെയ്ത് കിട്ടുന്ന സാമ്പത്തികവും ചെടിയിൽ പൂ നമ്മള് വെച്ച് പിടിപ്പിച്ചൊര് ചെടിയിൽ പൂ വരുന്ന സന്തോഷം പോലെയാണ് അത് അപ്പം അങ്ങനെ ഞാൻ ശെരിക്ക് എഞ്ചോയ് ചെയ്തിട്ടുണ്ടത്